ഹലോ ഹലോ ഹലോ ആ പറഞ്ഞോളൂ ആ ഓക്കെ പറഞ്ഞോളൂ സാര് നമ്മളിപ്പോൾ ഓള്മോസ്റ്റ് എല്ലാ തരത്തിലുള്ള ഇതും വെജിറ്റബിള്സും സെയിൽ ചെയ്യുന്നുണ്ട് സാര് ആ എങ്ങനെയാണ് സാര് ആ ഓള്മോസ്റ്റ് എല്ലാം ഉണ്ട് നമ്മൾ നാച്ചുറൽ ആയിട്ട് തന്നെ കൃഷി ചെയ്യുന്നതാണ് നമുക്ക് അങ്ങനെ ഹൈഡ് വരുന്ന ടൈപ്പ് ഒന്നും സാധനങ്ങളൊന്നും ഇല്ല ആ സാർ റേറ്റ് നമ്മളിപ്പോൾ ഹോള്സേൽ ഡീ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് സാർ എങ്ങനെയാണ് ഷോപ്പിലേക്ക് അങ്ങനെ എന്തെങ്കിലും ആണോ ആ ഓക്കെ സാർ എങ്ങനെയാണ് ബള്ക്ക് ആയിട്ട് എടുക്കാനാണോ ആ ഓക്കെ സാര് അപ്പോൾ നമുക്ക് റേറ്റും കാര്യങ്ങളും ഇപ്പോൾ സാറിന് ഏതൊക്കെ പ്രൊഡക്റ്റ് ആണ് വേണ്ടതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്തുതരാം ഏതൊക്കെയാണ് ഐറ്റംസ് എല്ലാ ഓള്മോസ്റ്റ് എല്ലാ ഐറ്റംസും സാറിനു വേണ്ടിവരുമോ ആ ഓക്കെ അപ്പോൾ നമുക്ക് ഏകദേശം എത്ര കോണ്ടിറ്റിയില് വേണ്ടി വരും ബള്ക്ക് ആയിട്ട് തന്നെ എടുക്കാനല്ലേ നമ്മളിപ്പോൾ ഓള്മോസ്റ്റ് എല്ലാ പച്ചക്കറിയും നമ്മൾ കൊടുക്കുന്നുണ്ട് സാര് അപ്പോൾ നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ സാർ ഏകദേശം ലിസ്റ്റ് അയച്ചു തരുവാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞുതരാം ഈ നമ്പറിലാണ് നമ്മൾ സാധാരണ എല്ലാം ചെ ആ കാര്ഡ് ആ കാര്ഡ് ഇല്ല സാര് നമ്മളങ്ങനെ കാര്ഡും കാര്യങ്ങളും ഒന്നും അടിച്ചിറക്കിയിട്ടില്ല പിന്നെ സാർ എന്നത്തേക്കാണ് എത്തുകയെന്ന് പറയുവാണെങ്കിൽ ഞങ്ങളതിനനുസരിച്ച് ചെയ്തുതരാം ഈ ആഴ്ച തന്നെ വേണം അല്ലേ ഓക്കെ സാർ വരുന്നതിന്റെ ഒരു രണ്ടു ദിവസം മുൻപ് പറയുവാണെങ്കിൽ ഏതൊക്കെ ഐറ്റംസ് ആണെന്ന് വെച്ചാൽ വാട്ട്സപ്പ് ചെയ്താൽ മതി ഈ നമ്പറിൽ വാട്ട്സപ്പ് ഉണ്ട് ഐറ്റംസ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുവാണെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ചെയ്തുതരാം ഓക്കെ സാർ എന്തായാലും നോക്കിയിട്ട് വിളിക്കുക കേട്ടോ ആ പിന്നെ സാർ എവിടെയാണ് സ്ഥലം എവിടെയാണ് കോഴിക്കോടാണല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും വരുന്നതിന് ഒരു രണ്ടു ദിവസം മുൻപ് സാർ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കറക്റ്റ് ക്വാണ്ടിറ്റി എല്ലാം ഇതാക്കിയിട്ട് പാക്ക് ചെയ്തു വയ്ക്കാം എന്നിട്ട് സാറിന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെനിന്ന് ഓപ്പണ് ചെയ്തു നോക്കാം എന്തെങ്കിലും പച്ചക്കറീന്റെ ക്വാണ്ടിറ്റിയിലോ പിന്നെ എന്തെങ്കിലും ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ സാർ ഇവിടെയൊന്ന് വന്ന് കഴിഞ്ഞാൽ നമ്മളത് മാറ്റി തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ സാര് എന്തായാലും നോക്കിയിട്ട് വിളിച്ചാൽ മതി